ഞങ്ങളുടെ പ്രദേശത്തെ കൈത്തറി ഉപയോഗിച്ച് മുതിർന്ന ആൾക്കാര് സാരിയും മുണ്ട് പൊതപ്പുകള് തോർത്തുകള് അങ്ങനത്തെ വസ്തുക്കളെല്ലാം നെയ്യുന്നത് കണ്ടിട്ട് ആണ് എനിക്ക് നെയ്ത്തിൽ താല്പര്യം തോന്നിയത് പക്ഷേ ഞാനാദ്യമെല്ലാം നെയ്യാൻ ശ്രമിച്ചെങ്കിലും അതെല്ലാം പരാജയപ്പെട്ടു പിന്നീട് മുതിർന്നവരുടെ ശിഷ്ടം നിർദ്ദേശാനുസരണം ഞാൻ വീണ്ടും വീണ്ടും പരിശ്രമിച്ചതു കൊണ്ട് എനിക്ക് ഒരുവിധം നെയ്യാനൊക്കെ ഞാൻ പഠിച്ചു വെച്ചു പഠിച്ചു അതുകൊണ്ടു തന്നെ അത്യാവശ്യ കാര്യങ്ങൾ അത്യാവശ്യ സമയത്ത് എനിക്ക് നെയ്യാനും തുന്നലിനും ഒക്കെ തുന്നലുമെല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ട്